എന്റെ ജീവിതത്തിൽ സാങ്കേതിക വിദ്യ ഒരുപാട് മാറ്റങ്ങള് ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ഭര്ത്താവ് ആദ്യമൊക്കെ വിദേശത്ത് പോയ സമയത്ത് ഒന്ന് വിളിക്കാനോ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല അപ്പോഴൊക്കെ ഭയങ്കര വിഷമായിന് എനിക്ക് ഒന്ന് കാണാനോ വിളിക്കാനോ ഒന്നും ആകാണ്ട് ഭയങ്കര വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് ഫോണുകളെല്ലാം വന്ന സമയത്താണ് നമ്മക്കൊന്ന് മെസേജയക്കാനും കണ്ട് സംസാരിക്കാനും എല്ലാം പറ്റുന്നത് ആദ്യം ഇങ്ങളെല്ലാം കത്ത് അയച്ച് കഴിഞ്ഞാൽ ആഴ്ചകളും എല്ലാമെടുക്കും ഒരു മറുപടി കിട്ടണമെങ്കിൽ അതുവരെ കാത്തിരിക്കണം മനസ്സൊക്കെ ഒരുപാട് വിഷമിച്ചോക്കണ് പക്ഷേ സാങ്കേതിക വിദ്യകളായ ഇതൊക്കെ വന്ന സമയത്ത് അതിന്റെയൊന്നും ആവശ്യം വന്നിരുന്നില്ല ഒന്ന് വിരലിന്റെ അറ്റത്ത് തൊടുമ്പം തന്നെ ഭര്ത്താവ് മുന്നില് വന്ന് നിൽക്കുന്നതുപോലെയാണ് അത് തന്നെ വലിയൊരു മാറ്റങ്ങളാണ് ലാപ് ടോപ്പും അതൊക്കെയുള്ള സമയത്ത് അത്രയ്ക്കും നമുക്ക് ആവശ്യങ്ങളെല്ലാം പുറത്ത് എവിടെയും പോകേണ്ട നമ്മളുടെ വിരലിന്റെ അറ്റത്ത് തന്നെ എല്ലാം ഉണ്ടാകും അതില് കുടൂതൽ ഒന്നും വേണ്ടല്ലോ സാങ്കേതിക വിദ്യ വന്നത് തന്നെ വളരെ വളരെ നല്ലതാണ് എന്റെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിഡീയോ കോളായിട്ടും കണ്ട് സംസാരിക്കാനും മെസേജ് അയക്കാനും എല്ലാറ്റിനും